മലയാള ഭാഷ കേരളത്തിലെ മാതൃഭാഷയാണ് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണ് തമിഴിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ തമിഴും മലയാളവുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട് എന്നാൽ മലയാളികൾക്ക് തമിഴ് പെട്ടെന്ന് മനസ്സിലാവുകയും തമിഴ് സംസാരിക്കുന്ന ആളുകൾക്ക് മലയാളം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അതെന്തെന്ന് വെച്ചാൽ എന്തൊണെന്നറിയില്ല പക്ഷേ മലയാളികൾക്ക് ഏത് ഭാഷയും പെട്ടന്ന് പഠിക്കാൻ കഴിയും പക്ഷേ മറ്റുള്ള ആളുകൾക്ക് മലയാളം പെട്ടെന്ന് പഠിക്കാൻ സാധ്യമല്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾ മലയാളം പഠിക്കുന്നത് വളരെ കുറവാണ് സി ബി എസ് സി സ്കൂളുകളിൽ ഒക്കെ ചേർന്ന് ഇംഗ്ലീഷ് ആണ് കൂടുതലും പഠിക്കുന്നത് അവർ മലയാളം മറന്നു പോകുന്നു മലയാളത്തിൽ എഴുതാൻ മാത്രം പറ്റുകയും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടാവുന്നു മലയാള കൃതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാത്തുമ്മയുടെ ആട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രത്യേക ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കൃതിയാണ്